ഹലോ ഹലോ ആഹ് മാ ഞാന് മലയാളം ടീച്ചറ ഞാന് മലയാളം ടീച്ചര് ആയിരുന്നോട്ടോ സാർ വിളിക്കുന്നത് ആ സാ ആ മാത്സിന്റെ ടീച്ചറ് സാറ് സാറത് കൊണ്ട് എനിക്ക് എന്റെ പോഷന് ഒത്തിരി കവർ ചെയ്യാനുണ്ട് അപ്പോൾ സാറിന്റെ പോഷനൊക്കെ തീര്ന്നോ തീരാറായതാണോ ആണോ എനിക്ക് എനിക്ക് എട്ടിന്റെം ഒമ്പതിന്റെം പത്തിന്റെം തീരാനുണ്ട് അപ്പോൾ പത്താം ക്ലാസ്സിന്റെ തീരണ്ടെ അത്യാവശ്യം ആണല്ലോ അപ്പോൾ സാറിന് ഏതെങ്കിലും ഫ്രീ അവറ് ആ എങ്കിൽ ഫ്രീ അവറ് വല്ലോം സാറിന് ഉണ്ടോ എട്ടിലേം ഒമ്പതിലേം തരാൻ ഏതെങ്കിലും രണ്ട് അവറ് വെച്ച് ആഹ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നാളെ രണ്ട് അവറ് എനിക്ക് തരാവോ സാറിന്റെ ആ ആ ആ ആ പിന്നെ ആ ഓക്കെ ഓക്കെ സാറ് രാവിലെ ട്യൂഷന് വല്ലോം എടുക്കുന്നുണ്ടോ പിള്ളേര്ക്ക് ക്ലാസിൽ ഇല്ലല്ലേ ആ സാറ് ഏട്ടാം ക്ലാസിലെ ഏതൊക്കെ ഡിവിഷനാ എടുക്കുന്നത് എട്ടാം ക്ലാസിലെ ഏതൊക്കെ ഡിവിഷ എയും ബിയും ആണോ എടുക്കുന്നത് ആ ആ അങ്ങനെ ആണെങ്കിൽ ആ നാളെ നാളെ നാളെ ഉച്ച കഴിഞ്ഞൊരു ഫസ്റ്റ് അവറ് ഉണ്ടല്ലോ സാറിന് പത്താം ക്ലാസിൽ അതെനിക്ക് തരണം തീരാറായതാണെങ്കിൽ ആ പിന്നെ ശനിയാഴ്ച ക്ലാസ് കാണുമോ ആ ഇല്ലല്ലേ ആ ഹാ പത്തിലെ എന്റെവറ് ഞാന് എടുത്ത് തീര്ത്തോളാം എട്ടിലേം ഒമ്പതിലേം തന്നാൽ മതി എനിക്ക് ഒരു ഹവറ് വെച്ച് ആ ഓക്കെ ഓക്കെ ആ ഹാ ആ എന്റെ എനിക്ക് രണ്ട് അവറ് പിന്നെ തീര്ന്ന ഇതുണ്ട് സാറിന് വേണേൽ തരാം എന്റെ അവറ് ഒരു ക്ലാസ്സ് എന്റെ പത്താം ക്ലാസിലെ ഒരു ക്ലാസ് വേണേൽ സാറിന് തരാം ക്ലാസ് എടുക്കാൻ ആ അന്നേരം അതെടുത്ത് ഞാന് എട്ടിലും എടുത്തോളാം അന്നേരം പത്തിലെ പത്തിലെ ഒരവറ് തരാം എന്റെ ക്ലാസ്സ് ആ ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഒരവറ് ഞാന് തരാം പത്തിലെ ആ അല്ല എട്ടിലെ ആ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് വേണോ സാറിന് ക്ലാസ്സ് ആവശ്യം ഉണ്ടോ വേണോ വേണ്ടെ ആ ആ എങ്ങനെ ക്ലാസ്സ് ഒക്കെ ഭംഗി ആയിട്ട് പോകുന്നോ സാറിന്റെ മാക്സ് ക്ലാസ്സ് ആ ആ ആ സാറിന്റെ ക്ലാസിലെ അസംബ്ലി കഴിഞ്ഞോ ആ ആ ക്ലാസ്സിലെ പിള്ളേര് എല്ലാവരും ഉണ്ടായിരുന്നോ ഇന്ന് ആ എന്റെത് ഇന്ന് ഇല്ലായിരുന്നു ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഫസ്റ്റ് ഹവറിലെങ്ങാണ്ട് ഉണ്ട് അസംബ്ലി വെക്കണം എന്ന് പ്രിന്സിപ്പള് പറഞ്ഞിട്ടുണ്ട് ആ അന്നേരമേ ഉള്ളൂ സാര് ലീവാണോ കാണുകേലേ ആ അന്ന് ആ അന്ന് മൊത്തം എടുത്തോളാം എന്നാൽ ആ അപ്പോൾ എന്റെ ക്ലാസ്സ് തീരും അന്ന് അപ്പം തന്നെ പെന്റിങ്ങ് ആയിട്ടുള്ള പിന്നെ മണ്ടേ സാറ് കാണുമോ മണ്ടേലുണ്ടോ സാറ് ഇല്ലേ ആ ആ ആ എന്റെ പോര്ഷന് അന്നേരത്തേന് തീരും അത് കൊണ്ട് സാരമില്ല ഒരു ദിവസത്തെ കിട്ടിയാൽ മതി ആണോ ആണോ ആ ആ ആ ഹാ ആ ഓക്കെ താങ്ക് യൂ